ചെടി നടുന്നത് എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള കാര്യമാണ് അതിൻ്റെ പൂക്കളും അതിൻ്റെ ഫലങ്ങളുമൊക്കെ എടുക്കാന് നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് വീട്ടില് നില്ക്കുമ്പോള്ത്തന്നെ നല്ലൊരു ഐശ്വര്യമാണ് ചെടിയും ഇപ്പോള് ഫലങ്ങളും ഞാന് ഒത്തിരിയേറെ ഉപയോഗിക്കുന്നതാണ് എനിക്ക് വളരെ അധികം ഇഷ്ടമാണ് ആ പൂക്കളെ കാണുമ്പോഴും അതിനകത്തെ പൂക്കളുടെ മണം ആസ്വദിക്കാനും ഞങ്ങളുടെ വീടിനു ചുറ്റും ഒത്തിരിയേറെ പൂക്കളും പിന്നെ വൃക്ഷങ്ങളും അത് അതിനാത്ത് ഇതും ചെ ഇതൊക്കെയുണ്ട് അപ്പോള് അത് കാണാൻതന്നെ ഭംഗിയാണ് നല്ല രസമാണ് ചെടികളെ കുറിച്ച് സംസ് കാ അതിൻ്റെ ഇടയിൽക്കൂടെ നടക്കുമ്പോള് നമുക്ക് മാനസികമായിട്ട് നല്ലൊരു സന്തോഷവും തന്നെ തരും ചെടികള് പിന്നെ പയറും ചീരയും വെണ്ടയും പാവലൊക്കെയാണ് അതിനകത്തുനിന്നു ഫലങ്ങള് കിട്ടുമ്പോഴും നമുക്കത് നല്ല ഒരു ഇതായിട്ട് തോന്നും നല്ല ഭംഗിയുമാണ് അതിൻ്റെ കണ്ടുകൊണ്ടു നില്ക്കാനും നല്ല രസമാണ് പറിച്ചെടുത്ത് നമുക്ക് ഉപയോഗിക്കാനും ആ ചെടികളുടെ മണം ആസ്വദിക്കാനും നമ്മൾക്ക് പ്രാർത്ഥനാ സമയത്ത് റോസാപ്പൂ കൊണ്ടുപോയി ദൈവത്തിന് വെക്കാനും ഒക്കെ നമക്ക് വളരെയധികം ഇഷ്ടം തോന്നും ചെടി നല്ലൊരു ഇതല്ലേ എല്ലാവർക്കും ആർക്കാണ് അത് ഇഷ്ടം ഇല്ലാത്തത് എല്ലാ മനുഷ്യർക്കും ചെടികളെ ഇഷ്ടമാണ് ചെടി നല്ല നല്ല വീട്ടിലെ ആൾക്കാരെ നമുക്ക് സ്വീകരിക്കാൻ ബൊക്കെയുണ്ടാക്കാനും മാല കോർക്കാനും പിന്നെ ചെടി രൂപത്തട്ടില് ദൈവത്തിന് വെക്കാനും ഒക്കെ ചെടികള് നമുക്ക് ഒത്തിരി ഇഷ്ടമാണ് കാണാൻ തന്നെ നല്ല ഭംഗിയുമാണ് ചെടി എല്ലാം അതുപോലെ അറേൻചെയ്ത് നമ്മളാ മുറ്റത്ത് ആദ്യം വരുന്നിടം തൊട്ട് അങ്ങേ അറ്റം വരെ അറേൻചെയ്ത് അതിനിടയില്ക്കൂടെ പോവാന്ന് പറഞ്ഞാല് നല്ലൊരു നല്ല ഒരു സുഖവുമാണ് ചെടി കാണുമ്പോഴേ നമ്മള്ക്ക് ആ മനസ്സിനൊരു സംതൃപ്തിയും ലഭിക്കും പിന്നെ നമ്മുടെ മനസ്സിന് അതുവരെ കാണുന്നവർക്കും നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് ചെടികളെല്ലാം പൂത്ത് നില്ക്കുന്നത് കാണുമ്പോഴത്തേക്കും എല്ലാവർക്കും ഒരു സന്തോഷമാണ് ചെടി നൽകുന്നത് ചെടി എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളതാണ് ചെടി ഒരു പൂന്തോട്ട പരിപാലനം അതുപോലെതന്നെ ചെടി നടല് പച്ചക്കറി വിത്ത് ഉത്പാദനം തൈ ഉത്പാദിപ്പി അതിൽ നിന്നും ഫ്രൂട്സ് എടുക്കുന്നതും അത് കാണാ അത് ഉപയോഗിക്കാനും നമ്മള് വീട്ടില്ത്തന്നെ ഉണ്ടാക്കുന്നത് കാരണം നമുക്ക് അതിനോട് ഒത്തിരിയേറെ താല്പര്യവുമാണ് എനിക്ക് ഏറ്റും ഇഷ്ടവും ഉള്ള ഒരു ജോലിയുമാണ് ചെടി